വാർത്താച്ചാനലുകൾ കൂടുതലായും കാണുന്നത് മലയാളം ചാനലുകളാണ് പിന്നെ സോഷ്യൽ മീഡിയാ ഇന്നത്തെക്കാലം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നല്ലതുമുണ്ട് മോശവുമുണ്ട് വാർത്തകളിലാണെങ്കിലും തന്നെ വളരെ മോശമായ വാർത്തകളുണ്ട് നല്ല വാർത്തകളുണ്ട് അങ്ങനെയൊക്കെ വാർത്താ മലയാളത്തിലുള്ള ചാനലുകൾ മാറി മാറി ഓരോരോ ചാനലുകളും മാറി മാറി മാറി മാറി മാറി നോക്കും എത്രയൊക്കെ ഏതൊക്കെ നല്ല വാർത്തകളാണ് ഏതൊക്കെ ചാനലുകളിൽ വരുന്നുണ്ട് ഏതൊക്കെ ചാനലുകളിലാണ് നല്ല വാർത്തകൾ പിന്നെ സോഷ്യൽ മീഡിയകളിലാണെങ്കിലും തപ്പി നോക്കും പിന്നെ പത്രങ്ങളിലാണെങ്കിലും അത്യാവശ്യം നല്ല നല്ലതായ വാർത്തകൾ നല്ല നല്ല മാസികകളും നല്ല നല്ലതായ വാർത്താച്ചാനലുകളും മാറി മാറി നോക്കിക്കണ്ട് നോക്കും പിന്നെന്തുവാ വാർത്താ ചാനലുകളിലേ വരുന്ന ഓരോരോ വാർത്തകളിൻ്റ അകത്തെ സത്യസന്ധത ഏതു ചാനലുകളിൽ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളത് അതും പരീഷിച്ചു നോക്കും നല്ല നല്ല വാർത്താച്ചാനലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയങ്ങളിരുന്ന് കാണുകയും സമയം സ്പെൻ്റ് ചെയ്യുകയും ചെയ്യും ഇല്ലായെങ്കിൽ മൊബൈലും ഓഫാക്കും ടീവിയും ഓഫാക്കും മലയാളത്തിലുള്ള മനോര മഴവിൽ അല്ല മനോരമ ഏഷ്യാനെറ്റ് കൈരളി ട്വൻ്റിഫോറ് പിന്നെ മാതൃഭൂമി കൈരളി ന്യൂസ്സ് മനോരമ പിന്നെ ഞങ്ങളുടെ ഹൈറേഞ്ച് പ്രദേശമായതുകൊണ്ട് ഹൈറേഞ്ചിലുള്ള ഹൈറേഞ്ചിലുള്ള കുറച്ച് പ്രാദേശിക ചാനളുകളുണ്ട് അതെല്ലാം മാറി മാറി നോക്കും വാർത്താച്ചാനലുകളിലുള്ള വ്യത്യാസങ്ങൾ ഏതൊക്കെ ചാനലുകളിൽ നിന്നാണ് വ്യത്യാസങ്ങളുള്ളത് നല്ല നല്ല വാർത്തകളേത് ചാനലുകളിലാണ് വരുന്നത് എന്നുള്ളത് സെർച്ച് ചെയ്തു നോക്കും പിന്നെ പത്രങ്ങളിലാണെങ്കിലും മനോരമ മാതൃഭൂമി മംഗളം ദേശാഭിമാനി ദീപിക എന്നുള്ള പത്രങ്ങളിലുള്ള അതായ വാർത്തകൾ പിന്നെ നല്ല നല്ല മാസികൾ നല്ല നല്ല മാസികകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും വായിക്കും കൂടുതലായിട്ടും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായ ഓരോരോ പ്രശ്നങ്ങളുണ്ടല്ലോ ഓരോരോ പ്രശ്നങ്ങളുണ്ടല്ലോ കൂടുതലായിട്ടും അതായത് ഓരോരോ ദിവസങ്ങളും രാവിലെ ടീ വി തുറക്കുമ്പോൾ മാധ്യമങ്ങൾ കാണുന്നത് ഒന്നെങ്കിൽ ആരെയെങ്കിലും അപായപ്പെടുത്തി അല്ലെങ്കിൽ അപകടം അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെയെങ്കിലും അപകടപ്പെടുത്തി അല്ലെന്നുണ്ടെങ്കിൽ കൊലപാതകം മോശമായിട്ടുള്ള ഇത് അങ്ങനെയുള്ളതൊക്കെയാണല്ലോ കൂടുതലായിട്ടും മാധ്യമങ്ങളിലിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ടും അല്ലാത്തതുകൊണ്ട് നല്ല നല്ലതായ വാർത്തകളൊന്നും തന്നെ ഒരു ഒരു മാധ്യമങ്ങളിലും വരുന്നില്ല സത്യസന്ധമായ വാർത്തകൾ കൊടുക്കുന്ന ഒരു ചാനലുകളുപോലുമില്ല എല്ലാ ചാനലുകളും തന്നെ അവരവരുടെ റേറ്റിങ്ങ് കൂട്ടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടവർ ഇതായിട്ട് നിൽക്കുന്നു നോക്കുന്നു അല്ല അതുകൊണ്ട് അവരവരുടെ ഏതായ കുറച്ച് റേറ്റിങ്ങ് കൂട്ടുക അവർക്ക് വേണം പണം സാമ്പത്തികം ആയിട്ടുള്ള നേട്ടങ്ങളും മറ്റുള്ള പ്രാദേശിക നേട്ടങ്ങൾക്കും വേണ്ടിയിട്ടവർ ട്രയല് ചെയ്യും ട്രൈ ചെയ്യും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ മാധ്യമങ്ങളുടേതായ അവസ്ഥകൾ നല്ല നല്ല വാർത്തകൾ കൊടുക്കുന്ന ചാനലുകൾ എന്നു പറഞ്ഞാൽ ഒരു ചാനലുമില്ല എല്ലാ ചാനലും തന്നെ വളരെ മോശം പ്രാദേശിക ചാനലുകളാണെങ്കിലും അല്ലാതല്ല നാഷലൈസ്ഡ് ചാനലുകളാണെങ്കിലും എല്ലാ ചാനലുകളും പിന്നെ നല്ല നല്ല വാർത്തകൾ വരുന്ന ചാനലുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് മെയിനായിട്ടും നല്ല നല്ല വാർത്ത വരുന്ന ചാനലുകൾ ഒന്നും തന്നെ ഇല്ല ഒന്നും ഒരു ചാനലുകൾ പോലും തന്നെ പറയാനില്ല എല്ലാ പ്രാദേശിക ചാനല് പ്രാദേശിക ചാനലുകളും എല്ലാ ചാനലുകളും തന്നെ ഓരോ ഒരു വാത്തകൾ തന്നെ അത് ഓരോരോ മാധ്യമങ്ങൾ മാറി മാറി മാറി മാറി മാറി മാറി മാറി വരുന്നു അത് അതുപോലെതന്നെ എല്ലാ ചാനലുകളിലും വരുന്ന വാർത്ത ഒന്ന് അത് പല വിധത്തിൽ ആക്കി രൂപകൽപ്പന ചെയ്ത് ഓരോരോ രീതിയാക്കിക്കാണിച്ച് ഓരോരോ രീതിയിൽ ഓരോ ഓരോരോ അവതാരകർ ഓരോരോ രീതിയിൽക്കൂടിക്കാണിച്ച് ആണ് ശരിക്കും ഇന്നത്തേക്കാലം മാധ്യമങ്ങൾ വഴി മുമ്പോട്ട് പോകുന്നത് പിന്നെ പത്രങ്ങൾ പത്രങ്ങളാണെങ്കിൽത്തന്നെ പോലും എല്ലാ പത്രങ്ങളിലും വരുന്നത് ഒരേ വാർത്ത പക്ഷെ അതിനകത്ത് സത്യസന്ധമായിട്ട് എഴുതുന്നവരുമുണ്ട് മോശമായിട്ട് എഴുതുന്നവരുമുണ്ട്

കൂടുതലായിട്ടും ഇന്നത്തേ കഴിഞ്ഞ കഴിഞ്ഞ കുറേക്കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതായ ദുരന്തങ്ങൾ അതായത് കൃഷി കൃഷി സ്ഥലങ്ങളിൽ കൃഷിസ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ അങ്ങനെയുള്ള ശല്യങ്ങളെല്ലാം കൂടുതലായതുകൊണ്ട് എല്ലാവിധമായ ബുദ്ധിമുട്ടുകളും മനുഷ്യനിന്നത്തെ രീതിയിൽ മുമ്പോട്ട് നിൽക്കുന്നു നല്ല വാർത്തകളൊന്നും തന്നെ ഒരു ഒരു ചാനലുകളും തന്നെ ഒരു ഒരു വാർത്താച്ചാനലുകളും തന്നെ നല്ലതായ വാത്തകളൊന്നും തന്നെ വരുന്നില്ല